ഞാൻ ഈ ഇതിൽ ഏറ്റവും ചെയ്തിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ നെല്ലിയാമ്പതി പോയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് നല്ല ഒരു അനുഭവമായിരുന്നു മുമ്പും പോയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം പോയത് നമ്മൾ പുലർച്ചെ അത്യാവശ്യം അതായത് ഒരു ദിവസം സ്റ്റേ അടിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേദിവസം വൈകുന്നേരം ഇവിടെനിന്ന് ഞങ്ങൾ ഒരു ട്രാവലറിൽ എല്ലാവരും കൂടി പോയി ഞങ്ങൾ പത്തിരുപത് ആൾ ഉണ്ടായിരുന്നു രാത്രി അവിടെ സ്റ്റേ അടിച്ച് രാവിലെ അവിടെ ആ കുന്നിന്റെ മുകളിൽ പോയി ആ സൂര്യനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ മലയുടെ ആ മുകളിൽ നിന്ന് അങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊങ്ങിവരുന്ന ആ ഓരോരോ അതായത് ഓരോ ടൈമിൽ നമുക്ക് ആ വരുന്ന ലൈറ്റ് അത്യാവശ്യം അനുഭവപ്പെടുന്ന ചെറിയ ഒരു ചൂട് ആ നല്ല അത്രയും നല്ല തണുപ്പിനും ആ ചെറിയൊരു കിരണം ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നല്ല എന്താ പറയാ വല്ലാത്തൊരു നല്ലൊരു ഫീലിങ്ങ് ആയിരുന്നു അത് ഞാൻ ഇത്രയും കാലം ഇപ്പോൾ രണ്ടുമൂന്നു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സ്റ്റേ അടിക്കാൻ ആദ്യമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അനുഭവമായിരുന്നു പിന്നെ അത് എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കുറച്ച് ഏട്ടായ്മാരും കാര്യങ്ങളൊക്കെ ഉളളതായതുകൊണ്ട് അവരെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്